ഒൻമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻമ്പത് അഞ്ച് ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിയഞ്ച് നാല് ലക്ഷത്തി അമ്പതിനായിരം പതിനായിരം ഒരുലക്ഷത്തി എൺമ്പത്തിയെട്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തിയേഴ്